ഉപകരണങ്ങൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കത്രിക ഉപയോഗിക്കും അതായത് ഇപ്പോൾ ചില ചെടികളിലൊക്കെ ചില ചെടികളിലല്ല മിക്കവാറും ചെടികളിലും പൂവൊക്കെ വളർന്നുകഴിഞ്ഞാൽ അത് വാടി അങ്ങ് എത്തുമല്ലോ അത് കഴിഞ്ഞാൽ നമ്മൾ ചെടിയിൽ അത് അങ്ങനത്തെ പൂവ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വെട്ടിക്കളയണം അങ്ങനെ ഉള്ളതിന് പിന്നെ ഇത് ഉപയോഗിക്കും കത്രിക ഉപയോഗിക്കും പിന്നെ അതുപോലെത്തന്നെ കത്രിക വേറൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അതായത് ഇല ചെടികൾ ഒക്കെ ഉണ്ടാവില്ലേ നമ്മൾ ഈ മതിൽ പോലെ റെഡി ആക്കി വയ്ക്കുന്നത് അങ്ങനത്തെ ചെടികൾക്കൊക്കെ വെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കത്രിക ഉപയോഗിക്കും അതായത് പല രൂപത്തിലും വെട്ടിക്കൊടുക്കാം പിന്നെ നമുക്ക് ഒരേപോലെ വേണമെങ്കിൽ വെട്ടിക്കൊടുക്കാം അങ്ങനെയൊക്കെ വെട്ടിക്കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും ചെടികൾക്കൊക്കെ ഭംഗി നൽകണമെങ്കിൽ നമ്മൾ കത്രിക കൊണ്ട് തന്നെ വെട്ടിക്കൊടുക്കണം നല്ല വൃത്തിയിൽ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ചില ചെടികളിലൊക്കെ കുഞ്ഞ് കുഞ്ഞ് ചെടികളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മളിങ്ങനെ കപ്പും കൊണ്ടൊന്നും വെള്ളം കോരി ഒഴിക്കുക പാടില്ല വെള്ളം കൈ ചിലപ്പോൾ കൈ കൊണ്ട് വേണമെങ്കിൽ കുടഞ്ഞ് കുടഞ്ഞ് ഒഴിക്കാം അങ്ങനെ ഒഴിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ സംഭവം കടയിൽ നിന്ന് കിട്ടും അതായത് ഒരു ഷവർ പോലെ ചെറിയൊരു ഷവർ പോലത്തെ സംഭവം കിട്ടും അതും കൊണ്ട് ഒഴിച്ചുകൊടുത്താലും നല്ലതാണ്